ഇപ്പോൾ ഗ്യാസിൻ്റെ ഉപയോഗം കടനിൽ കടന്ന് വന്നതോടെ വീട്ടിലെ പാചക രീതികൾക്ക് ഒത്തിരി സമയം ലാഭം ഉണ്ടായി പഴയ കാലത്ത് ആ അടുപ്പ് അടുപ്പ് വിറക് അടുപ്പ് ഉപയോഗിച്ചിരുന്നതിനേക്കാളും ഇപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ പക്ഷേ സമയം കുറച്ച് ഭക്ഷണം പാകപ്പെടുത്താൻ സാധിക്കുന്നു അതുപോലെ നമുക്ക് അടുപ്പേൽ ഉപയോഗിക്കുന്നതിലും ഗ്യാസെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കരി ഉപ കരിപ്പാത്രം കഴുകേണ്ടതായിട്ട് വരുന്നില്ല ഗ്യാസ് സമയം ലാഭമുണ്ട് പിന്നെ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴും കേട്ട് പോകാതെ വെള്ളം തിളച്ച് ചാടാതെയോക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പാചകം കഴിഞ്ഞ് കഴിയുമ്പം നമ്മളത് സ്റ്റവേൽ എല്ലാ സ്റ്റവിലും പിന്നെ സിലിണ്ടറിലും തീ നിർത്തിയിട്ടുണ്ടോന്ന് ശ്രദ്ധിക്കണം ആധുനിക ഇപ്പോൾ ആധുനിക കാലത്തെ ഇങ്ങനത്തെ രീതികൾ വന്നത് കൊണ്ട് പാചകത്തിന് ഒത്തിരി സമയം ലാഭമുണ്ട് അതു കൊണ്ട് വിറകടുപ്പ് വിറകടുപ്പ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും തീ ഊതികോ ഊതിയിരിക്കണം പിന്നെ ഇപ്പോൾ കരിപ്പാത്രം കഴുകണം അങ്ങനെയൊക്കെ ഇപ്പോൾ അത് ഒത്തിരി ഒത്തിരി നമുക്ക് സമയം ലാഭവും സമയക്കുറവും മതി